നമ്മൾ ഗ്രാമത്തിൽ നിന്ന് പുറത്തേക്ക് താമസിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്പോൾ പട്ടണത്തിലൊക്ക താമസിക്കാൻ വരുമ്പോൾ നമ്മൾക്ക് നമ്മൾക്ക് ചിലപ്പം ഒത്തിരി ബുദ്ധിമുട്ടുകൾ തോന്നും പല പല കാര്യങ്ങളിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ ഉണ്ടാവും ഗ്രാമത്തിലെന്ന് പറയുമ്പം നമ്മൾക്ക് എല്ലാ രീതിയിലും നമ്മൾക്ക് സൗകര്യമായിരിക്കും നല്ല പച്ചക്കറികൾ കിട്ടും നമ്മൾക്ക് കൃഷി ചെയ്യാൻ സൗകര്യമായിരിക്കും വെള്ളമൊക്കെ നല്ലതായിരിക്കും നമ്മൾക്ക് ഫ്രഷ് എയറ് കിട്ടും പിന്നെ നമ്മൾക്ക് വെളിയിലൊക്ക പോകാനുള്ള സൗകര്യങ്ങൾ കൂടുതലായിരിക്കും അങ്ങനെയൊക്കെ അവിടെ നിന്ന് പട്ടണത്തിലേക്ക് വരുമ്പത്തേനും ചിലപ്പം നമ്മൾക്ക് ചിലപ്പം ആഴ്ചയിൽ ഒരു ദിവസമൊക്കെ ആയിരിക്കും വെള്ളം കിട്ടുന്നത് ആ വെള്ളം കിട്ടുന്ന സമയം കൊണ്ട് നമ്മൾ എല്ലാത്തിലും പിടിച്ചു വച്ചു നമ്മൾക്ക് തുണി കഴുകാനും കുളിക്കാനും ഒക്കെ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടുകളായിരിക്കും പിന്നെ പച്ചക്കറികളൊക്കെ ആണെങ്കിലും പട്ടണത്തിലൊക്കെ ആണെങ്കിൽ നമ്മൾ പോയി വാങ്ങിച്ചു കൊണ്ട് വന്നാലേ നമ്മുടെ വീടുകളിൽ ഉണ്ടെങ്കിൽ ഓക്കേ നമ്മൾ പോയി വാങ്ങിച്ചു കൊണ്ട് വന്നാലും അതെല്ലാം വിഷം അടിച്ചു വരുന്ന പച്ചക്കറികളായിരിക്കും അപ്പം നമ്മൾക്ക് ഭക്ഷണ കാര്യത്തിൽ ആയാലും നമ്മൾക്ക് വളരെ അധികം പ്രയാസങ്ങളായിരിക്കും പിന്നേ അതുപോലെ തന്നെ നോൺവെജ് ആണെങ്കിലും നമ്മൾക്ക് കിട്ടാനുള്ള ബുദ്ധിമുട്ടുകളുണ്ടാവും നോൺവെജ് ആണെങ്കിൽ ഇപ്പോൾ കഴിക്കാനായിട്ട് കൊണ്ടു വന്നു കഴിഞ്ഞാൽ ആണെങ്കിലും അതും ഇപ്പം എന്നാൽ പറയുന്നത് നമ്മള് കോഴിയൊക്കെ ആണെങ്കിലും ഹോർമോൺ കുത്തി വച്ചും അങ്ങനെയുള്ള കോഴികളൊക്കെയാണ് നമ്മൾ ഇപ്പം കഴിക്കുന്നത് അപ്പം അതൊക്കെ ആണെങ്കിൽ നമുക്ക് ചിലപ്പം ഗ്രാമത്തിലൊക്കെ ആണെങ്കിൽ നല്ല നല്ല ഇതായിട്ടുള്ളതെല്ലാം കിട്ടുമായിരിക്കും നമ്മൾക്ക് അങ്ങനെയൊക്കെ കഴിക്കാനായിട്ട് നല്ലതായിരിക്കും അങ്ങനെയുള്ള ഒരുപാട് ബുദ്ധിമുട്ടുകൾ പട്ടണത്തിലുണ്ട് പിന്നെ നമ്മൾ എല്ലാത്തിനേയും അതിജീവിച്ചു നമ്മൾ ജീവിക്കണം എല്ലാം അതിജീവിച്ചു നമ്മൾ മുന്നോട്ട് പോകണം പിന്നെ അതുപോലെ എലക്ട്രിസിറ്റി ആണെങ്കിലും നമ്മൾ നമ്മൾക്ക് ചിലപ്പോൾ രാവിലെ നമ്മൾക്ക് എലക്ട്രിസിറ്റി പോയാൽ നമ്മൾക്ക് ചിലപ്പം ഒരൂ വൈകുന്നേരം ആറ് മണി ഏഴ് മണി ഒക്കെ ആവുമ്പോഴായിരിക്കും നമ്മൾക്ക് എലക്ട്രിസിറ്റി വരുന്നത് ആ കൂട്ടത്തിൽ വെള്ളവും കൂടി ഇല്ലെങ്കിൽ നമ്മൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് നമുക്ക് കുക്ക് ചെയ്യാനും പറ്റുകയില്ല നമുക്ക് വെള്ളം വെള്ളവും കരണ്ടുമില്ലെങ്കിൽ നമ്മൾക്ക് വലിയ പ്രയാസമാണ് മനുഷ്യന് ഏറ്റവും വേണ്ടത് ഇത് രണ്ടുമാണ് ഇത് രണ്ടുമില്ലെങ്കിൽ നമ്മൾക്ക് വളരെ അധികം ബുദ്ധിമുട്ടുകൾ നമ്മൾ അനുഭവിക്കേണ്ടി വരും പിന്നെ എന്നാൽ പറയുന്നത് പിന്നെ എന്നാൽ ഇത്രയൊക്കെ ഉള്ളൂ